ആ നമസ്കാരം ആ ആ ഓക്കെ നിങ്ങൾ എങ്ങനെയുള്ള സ്ഥലമാണ് നോക്കുന്നത് ആത്മീയമായിട്ട് ഉള്ള സ്ഥലങ്ങളാണോ ഈ അമ്പലങ്ങൾ അങ്ങനെ ആണോ അല്ലെങ്കിൽ ട്രക്കിങ് ആണോ നിങ്ങൾക്ക് താല്പര്യം അല്ലെങ്കിൽ പ്രകൃതി ഭംഗി ആസ്വദിക്കൽ അങ്ങനെ ആണോ നിങ്ങൾ നോക്കുന്നത് ഓക്കെ ഒരു ദിവസം കൊണ്ട് കണ്ട് പോകേണ്ട സ്ഥലം ആണോ അല്ലെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്ത് നിങ്ങളുടെ സ്ഥലം എവിടെയാണ് ഓക്കെ ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ഒറ്റ ദിവസം കൊണ്ട് കണ്ട് തീർക്കാൻ ആണോ അല്ലെങ്കിൽ ആ ഇവിടെ ആ ഓക്കെ ട്രെക്കിങ് ആണ് നോക്കുന്നതെങ്കിൽ ഇപ്പോൾ പാലക്കയം തട്ടുണ്ട് പൈതൽമല ഉണ്ട് ഇതൊക്കെ തളിപ്പറമ്പ് ഭാഗത്ത് അങ്ങോട്ടാണ് വരുന്നത് ട്രക്കിങിനു പറ്റിയ സ്ഥലമാണ് നല്ല ഭംഗിയുള്ള സ്ഥലം ആണ് വരുന്നത് താമസത്തിന് അവിടെ റിസ്സോർട്ട് ഉണ്ട് ഈ പാലക്കയം തട്ടിൻ്റടുത്തൊരു റിസ്സോർട്ട് ഉണ്ട് അവിടെ എക്കണോമിക്കലി ആയിട്ടുള്ളതാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും താമസിക്കാനും നല്ല നല്ല സ്ഥലം ആണ് ഉണ്ടാവുന്നത്

അത് എത്തിപ്പെടണമെങ്കിൽ കണ്ണൂർ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് തളിപ്പറമ്പ് ഭാഗത്തേയ്ക്ക് വന്നാൽ മതി ഞങ്ങൾ നിങ്ങൾ വരുകയാണെങ്കിൽ ഞങ്ങൾ ഏർപ്പാട് ആക്കും ഗൈഡിനെ ഏർപ്പാട് ആക്കും പിന്നെ അതുപോലെ തന്നെ ആ റെയിവേ സ്റ്റേഷനിൽ എറ എറങ്ങിയാൽ മതി അവിടെ പിക്ക് ചെയ്യാൻ ആൾക്കാർ വരും ഏത് ഡേറ്റ് ആയിരുന്നു നോക്കുന്നത് ഡിസംബർ ലാസ്റ്റ് വീക്ക് ഓക്കെ വ നല്ല ടൈം ആണ് നല്ല മഞ്ഞ് ഒക്കെ ഉണ്ടാകുന്ന സമയം ആണ് അത്

ആ അതെ അതെ ഓക്കെ ഇപ്പോൾ പാലക്കയം തട്ട് ആ പാലക്കയം തട്ടിൽ ആണെങ്കിൽ അവിടെ സ്റ്റേ ഉണ്ട് അത് കഴിഞ്ഞ് നമുക്ക് പൈതൽ മലയെന്നു പറഞ്ഞ ഒരു ഇതും ട്രക്കിങ് തന്നെ ആണേ പൈതൽ മല കഴിഞ്ഞു പിന്നെ ഏഴര കുണ്ട് വെള്ളച്ചാട്ടം ഉണ്ട് അതും ഇതുപോലെ തന്നെ ട്രക്ക് ചെയ്ത് മുകളിൽ പോയിട്ട് കാണേണ്ടത് ആണ് ഇതും നല്ല അടിപൊളി വെള്ളച്ചാട്ടം ആണ് അപ്പോൾ രണ്ടു ദിവസം കൊണ്ട് ആ പൈതൽ മലയിൽ എൻട്രി ഫീ ഇല്ല പാലക്കയം തട്ടിലും ഇല്ല ഏഴര കുണ്ട് വെള്ളച്ചാട്ടത്തിലുണ്ട് ഫിഫ്റ്റി റുപ്പീസ് ആണ് വരുന്നത് ഓക്കെ ഞങ്ങളുടെ ഗൈഡ് ഉണ്ടാവും കൂടെ ഗൈഡ് ഉണ്ടാവും അവർ ഡീറ്റൈൽസ് ഒക്കെ പറഞ്ഞ് തരും പിന്നെ നിങ്ങളുടെ താമസം ഒക്കെ നമ്മൾ ശരിയാക്കി തരും ഭക്ഷണം താമസം ഇതൊക്കെ ശരിയാക്കി തരും വാഹനങ്ങളും നമ്മൾ ശരിയാക്കി തരും അതിന് നിങ്ങൾ ഒരു ഡേറ്റ് പറയുകയാണെങ്കിൽ ഞങ്ങളിവിടെ റൂം ഒക്കെ ബുക്ക് ചെയ്ത് വെയ്ക്കാം ബ്ലോക്ക് ചെയ്ത് വെയ്ക്കാം ആ ഒരു ദിവസം പറഞ്ഞാൽ മതി

ഓക്കെ താങ്ക് യു ഓക്കെ